പല കാലാവസ്ഥകളിൽ വളരുന്ന ചെടിക്ക് നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ വേനൽക്കാലത്ത് വളരുന്ന ചെടിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഒരു പൈപ്പിട്ടിട്ട് നമ്മൾ സ്ഥിരം നനയ്ക്കുന്ന ഒരു സമ്പ്രദായം ആക്കി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വളരാനുള്ള ചാൻസികൾ കൂടുതലാണ് ഇപ്പോൾ നമുക്ക് ആ സമയത്ത് വെയിലും അത്യാവശ്യം വെയിലും കൊള്ളണം നമുക്ക് ആ സമയത്ത് എന്താ പറയാ വെള്ളവും കിട്ടണം അപ്പോൾ ചെടിക്ക് കൂടുതലായിട്ട് വെള്ളവും വെയിൽ കിട്ടുന്നൊരു സ്ഥലവാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ചോട്ടിൽ ഇപ്പോൾ കുറെ ചെടികൾ ഉണ്ടെങ്കിൽ ഓരോ ചെടിൻ്റെയും അടിയിൽ നമ്മൾ ഒരു സ്പ്രിംഗ്ലയര് വെച്ചു കൊടുക്കുവാണെങ്കിൽ അതിന് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെടി വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മഴക്കാലത്ത് പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ മഴക്കാലത്ത് താനേ വളർന്നോളും പിന്നെ വേനൽക്കാലത്ത് മാത്രമാണ് ഇങ്ങനത്തൊരു ഇത് വേണ്ടത് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടതിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗങ്ങളിൽ നിന്നൊക്കെ നല്ല ഒരു ഇതാക്കാൻ വേണ്ടീട്ട് അതായത് മൃഗങ്ങൾ വന്ന് തിന്ന് തിന്നാണ്ടിരിക്കാൻ വേണ്ടീട്ട് അതിൻ്റെ ചുറ്റും വേലിയോ അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് മറയ്ക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മൃഗങ്ങൾ വന്ന് തിന്നാണ്ട് അതിനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടി വളരാൻ വേണ്ടീട്ട് പലതരം പല കാര്യങ്ങളും ചെയ്യാലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്